മലയാളമെന്ന് പറയുവാണെങ്കിൽ തന്നെ എന്താണ് പറയുക ഒരു നമ്മുടെ മാതൃഭാഷയാണ് മലയാളം എന്നുപറയുന്നത് സാഹിത്യത്തിലാണെങ്കിലും കവിതയിലാണെങ്കിലും അതുപയോഗിക്കുന്ന രീതി അത്യാവശ്യം വ്യത്യസ്തമാണ് കവിതയിലേക്കാകുമ്പം കവിത എഴുത്തുമ്പം എന്താണ് അത് വായിക്കുന്ന ഒരാൾക്ക് ആ കവിതയുടെ അർത്ഥം വേഗം മനസ്സിലാവുമെന്നുള്ള കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളതെന്ന് പറയുന്നത് വായനക്കാർക്ക് നല്ല ആസ്വദിച്ച് വായിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും കവിത മലയാളത്തിൽ ഉണ്ടാവുക എന്താണ് പറയുക നല്ല എന്താണ് പറയുക ഓരോ വേർടിനും കവിത എഴുതുന്നതിനൊക്കെ ഓരോ വേർടിനും അതിന്റേതായ അർത്ഥങ്ങളും ആവിഷ്കാരങ്ങളും ഒക്കെ ഉണ്ടാവും സാഹിത്യത്തിനാണെങ്കിലും അങ്ങനെ തന്നെയാണ് വരുക കാരണം മലയാളമെന്ന് പറയുന്നത് നല്ലൊരു സിമ്പിൾ ലാംഗ്വേജ് ആണ് എഴുതാനും വായിക്കാനും ഒക്കെ എല്ലാം കൊണ്ടും ഒരു നല്ല ലാംഗ്വേജ് ആണ് ഇപ്പം കവിതയൊക്കെ വായനക്കാർക്കൊക്കെ എന്താണ് പറയുക നല്ല ആസ്വദിക്കാൻ പറ്റിയ ഒരു നല്ല ലാംഗ്വേജ് ആണ് മലയാളം എന്നുപറയുന്നത് അത് ഉപയോ ഉപയോഗ വ്യത്യാസമെന്ന് ഒക്കെ പറയുകയാണെങ്കിൽ തന്നെ എന്താണ് പറയുക നല്ല ഓരോ കവിതയെഴുതുമ്പോൾ അതിന് ഓരോ നല്ല അതിൻ്റെ പുറകിലൊരു അർത്ഥം ഉണ്ടാവും എന്നുള്ളതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത് പുറകിലൊരു അർത്ഥം ഉണ്ടാവും ഓരോ കവിതയ്ക്കും വായിക്കുന്ന ആ കവിത വായിക്കുന്ന ഒരാൾക്ക് വേഗം മനസ്സിലാകും എന്നുള്ളതാണ് വായനക്കാർക്ക് ഒക്കെ വേഗം മനസ്സിലാവുന്ന ഒരു ഭാഷയാണ് മലയാളം എന്ന് പറയുന്നത്